നൃത്തം ഒരു ഹോബിയായി പിന്തുടരാന് സമൂഹം പിന്തുണയ്ക്കുന്നില്ലയെന്ന് നമുക്ക് പൂര്ണ്ണമായിട്ട് പറയാന് പറ്റില്ല കാരണം അതിന് വേണ്ടി ഗവണ്മെൻറ്റും അതുപോലെ പ്രൈവറ്റായിട്ടും കുറെ അക്കാദമികളൊക്കെയും രുപീകരിച്ചിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് കേരളാ അക്കാദമി കലാമണ്ഡലം കാരണം സ്ത്രീകള്ക്ക് വേണ്ടി അവര് നൃത്തം പഠിച്ച് അവര്ക്ക് അതൊരു ജീവിത വരുമാനമാക്കിയെടുക്കാന് വരെ നൃത്തം സഹായിക്കുന്നുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും നൃത്തം പിന്തുണക്ക നൃത്തം പഠിക്കാന് പിന്തുണക്കാത്തത് ചിലപ്പം അവരുടെ വീട്ടിലുള്ള ആള്ക്കാര് ആയിരിക്കും കാരണം ഇപ്പം ഡാന്സ് കളിക്കാന് പോകണ്ട അങ്ങനെ പറഞ്ഞ് വീട്ടില് പിടിച്ച് നിര്ത്താന് നിര്ത്തുമ്പം മാത്രമേ ഈയൊരു പ്രശ്നംവരുന്നുള്ളൂ അല്ലാതെ നൃത്തത്തെ പിന്തുണയ്ക്കാന് സമൂഹം ഒരു രീതിയിലും സഹായിക് ഒരു രീതിയിലും സമൂഹം അതിനെ അംഗീകരിക്കാറില്ല ഈ നൃത്തത്തില് വെല്ലുവിളികളൊന്നും അധികം നേരിടുന്നില്ലായെന്ന് തന്നെ പറയാം കാരണം നൃത്തം ജോലിയായിട്ട് തിരഞ്ഞെടുത്ത് അത് പഠിപ്പിച്ച് വരുമാനമുണ്ടാക്കുന്ന കുറെ സ്ത്രീകള് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് സോ ഇപ്പം നമുക്ക് കുടുംബങ്ങള് തന്നെയാണ് ചിലപ്പമെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളില് നിന്ന് അകറ്റി നിര്ത്തുന്നു പറയാം കാരണം സമൂഹം എല്ലാത്തിനും പരിപൂര്ണ്ണ ഒരു സപ്പോര്ട്ടാണ് എല്ലാത്തിനും നൽകുന്നത്